സാധാരണയായി വളർത്തു മത്സ്യങ്ങളിൽ ഏറ്റവും ഭക്ഷിക്കാൻ ടേസ്റ്റുള്ളതാണ് ഗൗര പിന്നെ സിലോപ്പിയ നല്ലതാണ് പിന്നെ നട്രാ ആഫ്രിക്കൻമുഷി ഇതൊക്കെയാണ് നമ്മള് വളർത്തു മത്സ്യങ്ങളിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് പിന്നേ ഏറ്റവും കൂടുതല് കഴിക്കാൻ നല്ലത് കരിമീനാണ് നമ്മള്ക്കറിയാം കരിമീൻ ആണ് കേരളത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള മീന് എന്നെ സംബന്ധിച്ച് ടേസ്റ്റൂള്ളത് കരിമീൻ തന്നെയാണ് പിന്നെ മറ്റുള്ള കടൽ മത്സ്യങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മത്തി അയല ആമൂറ് അങ്ങനെയുള്ള മത്സ്യങ്ങള് നല്ലതാണ് നല്ല കിളിമീന് പിന്നെ കായൽ മത്സ്യങ്ങളില് നമുക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടമുള്ളത് വരാല് ചെമ്മീന് കൊഞ്ച് കായൽക്കൊഞ്ച് ഒക്കെ നല്ല നല്ല ടേസ്റ്റ് ഉള്ള മത്സ്യങ്ങളാണ് അതെനിക്കിഷ്ടം കൂടുതലും കരിമീൻ തന്നെയാണ് കരിമീൻ മപ്പാസൊക്കെ വച്ചുകഴിഞ്ഞാല് നല്ല കഴിക്കാൻ നല്ലതാണ് പിന്നേ കടൽ മത്സ്യങ്ങളിൽ പിന്നെ വരുന്നതാണ് മത്തി അയല ചൂട ഒക്കെ നല്ല നല്ല മത്സ്യങ്ങളാണ് കാൽസ്യം ശരീരത്തിന് കാൽസ്യം ലഭിക്കുന്ന വസ്തുക്കൾ ഒക്കെയാണ്